കുട്ടികള് ടിവി മൊബൈല് എന്നിവ കൂടുതലുപയോഗിക്കുമ്പോള് കുട്ടികളെന്നല്ല എല്ലാവർക്കും ഉള്ള പ്രശ്നം പ്രധാനമായിട്ടും തടി അനങ്ങുന്നില്ല നമ്മള് ഒരേ ഇരിപ്പിരുന്ന് ഈ സ്ക്രീനിലേക്ക് നോക്കി ഇങ്ങനിരിക്കുകയാണ് അപ്പോള് നമ്മുടെ കണ്ണിന് പ്രശ്നമാണ് തടി കനത്തു വരും അതായത് നമ്മള് തടി അനങ്ങാതെ ഇങ്ങനിരിക്കുമ്പോള് തടി കൂടി വരുക പിന്നെ നമുക്ക് കുറച്ച് ദൂരം നടക്കാന് കഴിയില്ല ഏ പിന്നെ മറ്റുള്ളവരുമായിട്ട് സംസാരിച്ചുള്ള ഒരു പരിചയം ഇല്ല മറ്റുള്ളവരെ കാണുമ്പോള് എങ്ങനെ പെരുമാറണം എങ്ങനെ നമ്മള് അവര് അവരോട് എങ്ങനെ സംസാരിക്കുന്ന രീതിയൊന്നുമറിയില്ല പിന്നെ ഒരു മായാലോകത്ത് അങ്ങനെ ജീവിക്കും ബുദ്ധി അവരവരെ ലോകത്തായിട്ടങ്ങനെ ജീവിക്കും ഒരു ഭ്രാന്തന്മാരുടെ അവസ്ഥയിലൊക്കെ വരും സ്ഥിരമായിട്ട് മൊബൈലില് ഗെയിമും കാര്യവും കളിച്ചിരിക്കുമ്പോള് ബുദ്ധി ചിലപ്പോള് ഒരു മാനസികരോഗി എങ്ങനെയാണോ അതേ അവസ്ഥയിലേക്ക് വരുന്നുണ്ട് പിന്നെ കാഴ്ചയ്ക്ക് കണ്ണിൻ്റെ കാഴ്ചയ്ക്കൊക്കെ പ്രശ്നം വരുന്നുണ്ട് ഉം മൊബൈലിലും ടിവിയില് കമ്പ്യൂട്ടറിലൊക്കെ ഓരോരോ ഗെയിമുകളും ആപ്പുകളുമൊക്കെ ഉണ്ടല്ലോ ഇപ്പോള് വേറെ ഗെയിമിലൊക്കെ അങ്ങോട്ട് ഏർപ്പെട്ടു കഴിഞ്ഞാലേ കുട്ടികള് ഒരു ഭ്രാന്തം ഭ്രാന്തമായൊരവസ്ഥയിലൊരു ഭ്രാന്തനെപ്പോലെ പെരുമാറുന്നൊരു അവസ്ഥയുണ്ടിപ്പോള്